ഈ ചോദ്യം ചോദിക്കുവാണേൽ തന്നെ ഒ അതിനകത്ത് തന്നെ ഉത്തരമുണ്ട് പല സമയത്തും ആരെങ്കിലും പത് അല്ലെങ്കിൽ ഈ പച്ചക്കറിക്കടയിൽ പോയി സാധനം വാങ്ങിച്ചാരെങ്കിലും ഈ കൂട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം പല കാര്യങ്ങളും പ്രത്യേകിച്ച് പണ്ട് കാലത്തെക്കെയാണെങ്കിൽ ഈ ഈ തൂക്കില് ത്രാസിന്റ അടിയിൽ കാന്തം വെച്ചിട്ട് ഈ കിലോ കൂട്ടുന്ന സംഭവം ഉണ്ടായിരുന്നു പണ്ട് അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഒന്നും ഇപ്പം നടക്കത്തില്ല ഇപ്പഴത്തെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ കിലോ തൂക്കുന്ന വേറൊര് രീതിയിലാണ് അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുത് അത് നമുക്ക് ആദ്യം ഈ ചോദിക്കുന്ന ആള്ക്കാരാദ്യം കടയിൽ പോയി സാധനം വാങ്ങണം നേരെ പോയി നോക്കി എത്ര ഇത് ഒന്നും വേണ്ട ഇപ്പം വ്യാപാരക്കാര് തന്നെ ഇപ്പം അത് രണ്ട് ഇപ്പം തക്കാളി ഒന്ന് സവാള സവാള ഒര് കാലത്ത് നല്ല പോലെ വില കൂടിയ ഒരു സാധനമാണ് സ്വര്ണത്തേക്കാളും വിലയായിരുന്നു സവാളയ്ക്ക് സത്യമാണ് അത് സവാളയെക്കാള് സവാളയ്ക്ക് ഭയങ്കര റേറ്റ് ആയിരുന്നു ആ സമയത്തെക്കെ ഒന്ന് ചെന്ന് വാങ്ങണമായിരുന്നു ഇപ്പം ഇങ്ങനെ ഉള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പം ആ ചോദ്യ ഉത്തരം ഞാന് പറയുവാണെങ്കിൽ തന്നെ പണ്ട് കാലത്തൊക്കെ വാങ്ങുന്നവരുടെ അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ത്രാസിന്റ അടിയിൽ കാന്തം വെച്ചിട്ട് ഒന്നരക്കിലോ സവാള വാങ്ങി അല്ലെങ്കിൽ തക്കാളി അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഇതൊന്നും അല്ലെങ്കിൽ കോവക്ക പടവലം അടിവെയ്ത്ത് അല്ലെങ്കിൽ എന്തുവ കൊച്ചുള്ളി വെളുത്തുള്ളി ഇതെക്കെ വാങ്ങുമ്പം ഈ അടിയിൽ ത്രാസ് കാന്തം വെച്ചിട്ട് ഇത് വാങ്ങിച്ചിട്ട് ഈ പാവപ്പെട്ടവരെന്ത് ചെയ്യും ഇതൊക്കെ അത് ഞാന് അങ്ങോട്ട് തന്നെ തിരിച്ച് ഞങ്ങൾ ഈ ചൊ ഞാന് ചോദ്യം ചോദിക്കുകയാണ് അപ്പം ഇത് ചെയ്യുമ്പോൾ ആ രീതിയിൽ നിങ്ങള് ചെയ്യണ്ടെ ഇതൊക്കെ അത് ഇപ്പം ഓണ്ലൈന് ഷോപ്പിംഗ് ഇപ്പം ഷോപ്പിങ് മീന്സ് ഈ ഡ്രസ്സ് വാങ്ങുന്ന സംഭവമല്ല ഓണ്ലൈനായിട്ട് കൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് തരും ഇത് നല്ലതാണോ ചീത്തയാണോന്ന് വല്ലതും നിങ്ങൾക്കറിയാമോ നോക്കി കണ്ട് വാങ്ങുക തക്കാളി പണ്ട് എന് എന്റമ്മെയെക്കെയാണെൽ പോലും തക്കാളി ഒന്ന് ഞെക്കി നോക്കും നല്ലതാണോ എന്നുള്ളത് എ നല്ലതാണോന്ന് ഞെക്കി നോക്കും ഇല്ലെങ്കിൽ അത് വാങ്ങത്തില്ല ഇല്ലെങ്കിൽ പി അത് അത് മാത്രവല്ല അയിൻ്റെ ഇത് ഇത് ഈ വെണ്ടക്കയുടെ ചുണ്ടൊന്നൊടിച്ച് നോക്കും നല്ലതാണോ എന്നുള്ളത് അതൊക്കെ നോക്കിയാണ് വാങ്ങുന്നത് പണ്ട് കാലത്ത് ഇപ്പഴും അങ്ങനെ തന്നെ അമ്മയുടെ അമ്മ ഒക്കെ പ്രത്യേകിച്ച് നമ്മളൊക്കെ പോയാൽ നമ്മൾ ഈ വാരി പെറുക്കിയിട്ട് വാങ്ങുന്നത് അല്ലാതെ